കേരളം പലതരം ആർട്ട്ഫോംസും കൽച്ചറും ഉള്ള ഒരു സംസ്ഥാനമാണ് കളരി കഥകളി ഓട്ടം തുള്ളൽ ചാക്ക്യാർകൂത്ത് മോഹിനിയാട്ടം തെയ്യം എന്നിവ പല പല കലകൾ നിറഞ്ഞ ഒരു ഇത് സംസ്ഥാനം തന്നെയാണ് കേരളം അപ്പം ഈ ഇതുപോലത്തെ കൽച്ചറും ഹെറിട്ടേജുമൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കണം അതിനെ അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം നമ്മൾ കലയെ സ്നേഹിക്കാൻ പഠിക്കണം കല കലയെ വളർത്താൻ പഠിക്കണം ഒരിക്കലും കലയെ നമ്മൾ ദ്രോഹിക്കരുത്

അത് അത്രയ്ക്കും ഒരു ഒരൂ പ്രദേശത്തിൻ്റെ ഒരു അഭിമാനവും അതിൻ്റെ ഒരു ഐഡൻ്റിറ്റിയുമാണ് കല എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾടെ ഭാരതം തന്നെ പലതരം പലതരം ഡൈവേഴ്സായിട്ടുള്ള ഒരു കൾച്ചറും ഹെറിറ്റേജും ഉള്ള ഒരു ദേശമാണ് അപ്പം കേരളത്തിൽ തന്നെ അതിൽ ഇന്നും നമുക്ക് നോക്കുമ്പം ഇവിടെ തന്നെ ഉണ്ട് പലതരം അത് വിഭാഗത്തിൽ പെട്ട ആൾക്കാരും അവരുടേതായ അത് ഒരുപാട് കൾച്ചറും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ വച്ചാണ് കേരളം വളർന്ന് പോകുന്നത് അപ്പം നമ്മൾ എല്ലാവരുടെയും അവരുടേതായ കലകൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുമ്പം കേരളത്തിൽ ഒരു ബ്രദർഹുഡും ഒരു ഹാർമണിയും നമുക്ക് കാണാം എല്ലാവരും സ്നേഹത്തിലും സമാധാനത്തിലും നമുക്ക് പോവും ഇപ്പോൾ ഓണം നമ്മൾ എടുക്കുമ്പം നമ്മൾ എത്ര തരം കളികളും പിന്നെ അല്ലാതെ തന്നെ ഇപ്പം ഓണപ്പാട്ട് പിന്നെ തിരുവാതിര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു കേരളം കേരളമാക്കി തീർക്കുന്ന ഒരുപാട് എലമെൻസാണ് അപ്പം കല എന്തുകൊണ്ടും ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനെ എടുത്ത് എടുത്ത് കാണിക്കുന്ന ഒരു എലമെൻ്റ് ആണ് കല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും അതിനെ സൂക്ഷിക്കാനും അതിനെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിക്കണം